ആ ഹലോ നിങ്ങൾക്ക് ഒരു സംഗീത കച്ചേരിക്ക് ഞങ്ങൾക്ക് അന്നത്തെ യേശുദാസിൻ്റെ ആ സംഗീത കച്ചേരിയൊന്ന് കാണാൻവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതൊന്ന് ഞങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് നാല് പേർക്ക് അവിടെ വരണം

ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ കുടുംബം മൊത്തത്തിലാ വരുന്നത് അപ്പം ഞങ്ങൾക്ക് നാല് പേർക്ക് അവിടെ വന്ന് ഇത് പരിപാടി കണ്ട് കാണുകയും അപ്പം അപ്പം അത് ആസ്വദിക്കുകയും ഒക്കെ ചെയ്യണം ആ അതെ അതെ അതെ ആ അവർക്ക് ഈ ശാസ്ത്രീയ സംഗീതം ഒക്കെയാണ് ഇപ്പം വെച്ചാൽ ഈ സംഗീത കച്ചേരിയുടെ അത് ഒരു ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഭവം കിട്ടണം അത് ആസ്വദിക്കുന്നതിനുള്ള ഒരു അനുഭവം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കിട്ടണം